പലതരത്തിലുള്ള മതങ്ങൾ ഇന്ത്യയിലുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ ആയാൽപ്പോലും ക്രിസ്തു മതം ഹിന്ദു മതം മുസ്ലിം മതം അങ്ങനെ മൂന്നു മതങ്ങൾ കാണും അതിൽ ഹിന്ദു മതക്കാരെണെങ്കിൽ നമ്മൾ അമ്പലങ്ങളിൽ ഉത്സവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ സാധാരണ രീതിയിലുള്ള പച്ചക്കറികളുപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഉണ്ടാവുക അതെ സമയം മുസ്ലിംസിൻ്റെ ആണെങ്കിൽ അവർക്ക് ബിരിയാണിയാണ് കൂടുതൽ പള്ളി ഉസ്തവങ്ങളിലൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഹിന്ദു മതത്തിലാണെങ്കിൽ അമ്പലങ്ങളിൽ മീനോ എറച്ചിയോ ഒന്നും ഉപയോഗിക്കുല്ലാന്നുള്ളൊരു വിശ്വാസത്തിന്റെ പേരിൽ അതൊന്നും നമ്മളെ അമ്പലത്തിൽ ഉപയോഗിക്കാറില്ല പിന്നെ അതുപോലെ വ്യത്യസ്തമായ ഉത്സാവങ്ങളാന്ന് ഓരോ മതത്തിലും ഉണ്ടാവുന്നത് മുസ്ലിം മതത്തിലായാലും ഹിന്ദു മതത്തിലായാലും ക്രിസ്ത്യൻ മതത്തിലായാലും എല്ലാം വ്യത്യസ്തമായ ഉത്സവങ്ങൾ ആ ഉത്സവത്തിൽ ഓരോന്നിനും ഉപയോഗിക്കുന്ന ഇത് പല തരത്തിലും ആണ് ഇപ്പം ഹിന്ദു മതത്തിലായപ്പോലും ഒരു വിഷുവിനു നമ്മൾ പലതരത്തിലുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കണി വെക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ പച്ചക്കറികളുപയോഗിക്കുന്നുണ്ട് അതുപോലെ പൈസ അതുപോലെ മുണ്ട് എല്ലാം നമ്മൾ കണി വെക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഓണത്തിനായാലും നമ്മൾ പൂ ഇട്ടിട്ട് ഓണാഘോഷിക്കുന്നുണ്ട് അതുപോലെതന്നെയാണ് ഇവർ ക്രിസ്ത്യൻസിനു ആയാലും അവർക്ക് ഈസ്റ്റർ പെസഹ വ്യാഴം ദുഃഖ വെള്ളി അതുപോലെ ഉള്ള ക്രിസ്മസ് ഇങ്ങനെയുള്ള പരിപാടിക്കെല്ലാം ഓരോ ഇതിലും ഓരോ തരത്തിലുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈസ്റ്റർ ആണെങ്കിൽ അവർക്ക് അതിനു വേണ്ടി പ്രത്യേക ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പെസഹ വ്യാഴത്തിനായാലും അങ്ങനെതന്നെയാണ് അവർ ക്രിസ്മസ് ആണെങ്കിലും പ്രത്യേക തരത്തിലുള്ള വ്രതങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഇത് ഓരോ മതത്തിലും ഓരോ തരത്തിലാണുള്ളത് അതുപോലെ ഇന്ത്യയിലാണെങ്കിൽത്തന്നെ വ്യത്യസ്തമായ മതങ്ങളുണ്ട് അതുപോലെ തന്നെ മുസ്ലിം മതത്തിലും മുസ്ലിം മതത്തിലായാലും അവർക്ക് പെരുന്നാള് അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതിലൊക്കെ അവർ ഭക്ഷണങ്ങളായാലും പലതരത്തിലുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്